ഞാൻ വാങ്ങിയ ഉൽപ്പന്നം കത്തിയാണ് ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്രയും നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ വളരെ നല്ലതാണ് അടുക്കളയില് പെരുമാറാനൊക്കെ സൗകര്യപ്രദമായൊരു കത്തിയാണ് പച്ചക്കറികള് അരിയാനും പഴങ്ങൾ മുറിക്കാനൊക്കെ ഏറെ ഉപകാരപ്രദമാണ് അതുപോലെ കൈയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു കത്തിയാണ് ഒത്തിരി വലിപ്പം കൂടിയതും തീരെ ചെറുതുമല്ലാത്തൊരു സൈസിലാണിത് വന്നിരിക്കുന്നത് അതുപോലെതന്നെ ഈ ഇതിൻ്റെ പിടിയെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് അല്ല തടി കൊണ്ടുള്ള പിടിയാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക് പിടിയുള്ള കത്തിയേക്കാൾ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടത് ഇത്തരത്തിൽ ഈ തടി കൊണ്ടുണ്ടാക്കിയ പിടിയുള്ള കത്തിയാണ് അതുകൊണ്ടു തന്നെ എനിക്ക് ഈ കത്തി വളരെയേറെ ഇഷ്ടപ്പെട്ടു കൂടുതൽ ഉപകാര പ്രദമാണ്